ഇരുപത്തിയൊന്ന് അഞ്ച് ആയിരത്തിത്തൊളയിരത്തി തൊണ്ണൂറ്റി ആറ് അഞ്ച് അഞ്ച് പതിനൊന്ന് ആയിരത്തിത്തൊളയിരത്തി തൊണ്ണൂറ്റി ആറ് ഒന്ന് പന്ത്രണ്ട് ആയിരത്തിത്തൊളയിരത്തി തൊണ്ണൂറ് ഇരുപത്തിരണ്ട് ഏഴ് ആയിരത്തിത്തൊളയിരത്തി എൺപത്തിയെട്ട് പതിമൂന്ന് ആറ് രണ്ടായിരത്തി മൂന്ന്